സ്റ്റാമ്പുകളും കോയിനുകളും കല്ലുകളൊക്കെ ശേഖരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് അറിവിൻ്റെ ഒരു പ്രധാനപ്പെട്ട കലവറ തന്നെയാണ് അത് കാരണം സ്റ്റാമ്പുകൾ പല രാജ്യങ്ങളുടെയും പല വ്യക്തികളുടെയുമായിട്ടുള്ള സ്റ്റാമ്പുകൾ കാണാനായിട്ട് ഇടയായിട്ടുണ്ട് അതെല്ലാം പരിചയപ്പെടാനും അതുപോലെ മറ്റുള്ളവർക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുമായിട്ട് സാധിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഓരോ രാജ്യത്തിൻ്റേയും ഓരോ സ്റ്റാമ്പുകളും പല തരത്തിലുള്ളവയും അതുപോലെ ഓരോ ആഘോഷങ്ങളോട് അനുബന്ധിച്ചും ഓരോ വ്യക്തികളുടെ ബഹുമാനത്തെ കുറിച്ചുമൊക്കെ ഈ സ്റ്റാമ്പുകൾ പലപ്പോഴും ഇറക്കാറുണ്ട് അത് കാണുന്നത് തന്നെ വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ പല ഓരോ ഈ രാജ്യത്തിൻ്റേയും ഒരോ ചിഹ്നങ്ങളും അതുപോലെ അവരുടെ രാജ്യത്തിൻ്റേതായ പ്രത്യേകതകളും കൂട്ടിയാണ് ഈ സ്റ്റാമ്പുകളൊക്കെ എല്ലാം തന്നെ ഇറക്കുക ഇന്ത്യയ്ല് പ്രധാനമായിട്ടും ഓരോ ആഘോഷത്തിനും പ്രത്യേകമായിട്ട് ഒരു ആഘോഷത്തിന് സർക്കാർ സ്റ്റാമ്പുകൾ ഇറക്കാറുണ്ട് അതുപോലെ കേരളത്തിൽ ആണെങ്കിലും കേരളത്തിൽ ഇന്ത്യൻ തപാൽ വകുപ്പിൽ ആദ്യമായിട്ട് സ്റ്റാമ്പ് ഒരു വ്യക്സ്തിയുടെ ബഹുമാനാർത്ഥം ഇറക്കിയത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് അതുപോലെ വിശുദ്ധ അൽഫോൺസാമ്മ അത് മറ്റു പ്രമുഖ വ്യക്തികളുടെ എല്ലാം സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ ഓരോ വർഷവും ഓരോ വർഷവും പ്രത്യേകമായിട്ട് സ്റ്റാമ്പുളെല്ലാം ഇറാക്കി ആ വ്യക്തികളെ ബഹുമാനിക്കുന്നുമുണ്ട് അത് മാത്രമല്ല

അതൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു പലപ്പോഴും നമുക്ക് പഠിപ്പിക്കുമ്പോൾ കാണിക്കാൻ പറ്റാറില്ല അതൊരു കുറവാണ് പക്ഷെ അത് ശേഖരിച്ചു വയ്ക്കുന്നവരുടെ അടുത്താണെങ്കിൽ അത് അവരുടെ അടുത്തൊന്ന് കൊണ്ടു പോയി അത് കുട്ടികളെയൊക്കെ കാണിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കോയിനുകൾ പലതരത്തിലൊള്ള നാണയങ്ങൾ ഓരോ ഓരോ രാജ്യങ്ങൾക്കും പ്രത്യേകം നാണയങ്ങൾ ഉണ്ട് അതു പോലെ ഇന്ത്യയിലാണെങ്കിൽ കാലാകാലം ത്ത് ഓരോ സർക്കാർ ഓരോ നാണയങ്ങൾ റിസർവ്വ് ബാങ്കുകാർ നാണയങ്ങൾ ഇറക്കാറുണ്ട് അത് കുട്ടികൾ പലപ്പോഴും പരിചയപ്പെടുന്നില്ല നാണയങ്ങളൊന്നും കുട്ടികളുടെ അവർ കഴിഞ്ഞ കാലങ്ങളിൽ പണ്ടുകാലത്തുള്ള ആളുകൾ ഉപയോഗിച്ചു കൊണ്ട് നാണയങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുള്ള നാണയങ്ങളൊന്നും കുട്ടികൾക്ക് വലിയ പരിചിതമല്ല അതും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വയിക്കുന്നതും ഒക്കെ നല്ലതാണ് കുട്ടികളുടെ പഠനത്തിനാവശ്യം പഠനത്തിൽ ഈ നോട്ടുകളെ നാണയങ്ങളാക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഈ നാണയങ്ങൾ കൊടുക്കാനായിട്ട് നാണയങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം സാധിച്ചായിരുന്നു അപ്പം അത് കുട്ടികൾ പല പല നാണയങ്ങൾ അവർ കണ്ടിട്ടില്ല പഴയതായിട്ടുള്ള നാണയങ്ങൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല നാണയങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കാറില്ല അത് ഇന്ന് കുട്ടികൾക്ക് കാണാനായിട്ടുള്ള സാധ്യതകൾ പലപ്പോഴും ഇല്ല അപ്പം അങ്ങനെയുള്ള സാധ്യതകളൊക്കെ പഠനത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ ഈ കുട്ടികൾക്ക് അതെല്ലാം ഓരോ നാണയങ്ങളെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കും അതുപോലെ തന്നെ ഒരൊറ്റ രാജ്യത്തിൻ്റേയും പ്രത്യേകമായിട്ടുള്ള നാണയങ്ങൾ ആ നാണയങ്ങളും കുട്ടികൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഈ നാണയങ്ങളുടെ ശേഖരണം ശേഖരമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും അത് മാത്രമല്ല നമ്മളുടെ ഇന്ത്യയിലാണെങ്കിലും ഓരോ നാണയങ്ങളെ ഉദാഹരണമായിട്ട് ഓരോ വ്യക്തികളുടെ ബഹുമാനമായിട്ട് ബഹുമാനാർത്ഥം നമ്മൾ ഓരോ വർഷവും അതുപോലെ തന്നെ ചില വർഷങ്ങളൊക്കെ കൂടുമ്പോൾ നാണയങ്ങൾ ഇറക്കാറുണ്ട് അപ്പം ആ നാണയങ്ങളൊന്നും കുട്ടികൾ കണ്ടിട്ടില്ല പലപ്പോഴും അത് മാത്രമല്ല ഓരോ കാലങ്ങളിൽ ചില നാണയങ്ങളൊക്ക നിർത്തലാക്കിയിട്ടുണ്ട് അപ്പോൾ പഴയ നാണയങ്ങളൊക്കെ ശേഖരിച്ചു വച്ചാൽ മാത്രമാണ് പിന്നീടുള്ള തലമുറയ്ക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാനും അവർക്ക് അതിനെ കുറിച്ചു പഠിക്കാനുമൊക്കെ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ വെറുതെ ഒരു പഠനം മാത്രമാവാതെ ഈ നാണയങ്ങളെല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പലതരത്തിലുള്ള കല്ലുകൾ ഈ കല്ലുകളെല്ലാം നമ്മൾക്ക് പലതരത്തിലുള്ള കല്ലുകൾ ഉണ്ടല്ലോ കാണാൻ ഭംഗിയുള്ള കല്ലുകൾ നമ്മൾ അക്വോറിയത്തിലും മറ്റും ഉപയോഗിക്കുന്നവയും അതുപോലെ നദികളിലും മറ്റുമൊക്കെ ഉള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതൊന്നും ഇന്നത്തെ കുട്ടികൾ അതൊന്നും കാണുന്നില്ല അപ്പം അതൊക്കെ നമ്മൾ ഒരു കാണാൻ എനിക്ക് എനിക്ക് വളരെ കല്ലുകൾ കല്ലുകൾ കാണാൻ നല്ല രസമുണ്ടല്ലോ അപ്പം അതെല്ലാം കാണുവാനും അതിനെ കുറിച്ചു പഠിക്കാനൊക്കെ ഇപ്പം നല്ല താല്പര്യമുണ്ട് അത് പലപ്പോഴും നമ്മൾക്ക് കല്ലുകൾ അധികമൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ചു അച്ചധികമൊന്നും ഓർക്കാറില്ല കല്ലുകൾ നല്ല ഭംഗിയുള്ള കല്ലുകൾ നമ്മുടെ നദികളിലും അതുപോലെ നമ്മൾ ചെറിയ അരുവികളിലൊക്കെ കല്ലുകൾ ഉണ്ട് ഈ കല്ലുകളെല്ലാം വളരെ കാലം കൊണ്ട് രൂപപ്പെട്ടവയാണ് ഈ നദികളിലേക്ക് ഏതെങ്കിലുമൊക്കെ കാലങ്ങളിൽ മഴയും അതുപോലെ ഒക്കെയുള്ള ഭൂകമ്പവും വെള്ളപ്പവുമൊക്കെ ഉണ്ടാവണ സമയങ്ങളില് ഈ കല്ലുകളെല്ലാം നദിയിൽ പതിക്കുകയും പലതരത്തിലുള്ള രൂപങ്ങൾ രൂപമാറ്റം സംഭവിച്ചു ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കുട്ടികൾക്ക് കാണുവാനും അതിനെ കുറിച്ച് കൂ ടുതൽ കല്ലുകളെ കുറിച്ചു കൂടുതൽ ഒന്നും കണ്ടെത്താനായിട്ട് കാണാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ കല്ലുകൾ നമുക്ക് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പം അതിൽ കൂടുതൽ ഗവേഷണം നടത്താൻ ഇപ്പം ഓരോ സ്ഥലങ്ങളിലും കല്ലുകൾക്ക് പ്രത്യേകതയുണ്ട് നമുക്ക് നമ്മൾ നോക്കിയാൽ അറിയാം വെറും മണ്ണിൽ കിടക്കുന്ന കല്ലുകൾക്ക് നിറ വ്യത്യാസമുണ്ട് അതുപോലെ പുഴയിലുള്ള കല്ലുകൾക്ക് വ്യത്യാസം ഉണ്ട് പാറക്കല്ലുകൾക്ക് വ്യത്യാസം ഉണ്ട് ഈ കല്ലുകളെല്ലാം ഓരോ തരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു പിന്നെ ചില കല്ലുകളെല്ലാം നമ്മൾ പെട്ടെന്നു തന്നെ പൊടിഞ്ഞു പോകുന്ന കല്ലുകൾ ഉണ്ട് അപ്പം അത് മണ്ണിൽ നിന്ന് നിറമുള്ള ആ കല്ലുകളെല്ലാം മണ്ണിൽ അലിഞ്ഞു ചേരാറുണ്ട് പല പ്രകൃതി ദുരന്തങ്ങളൊക്ക സംഭവിക്കുമ്പോൾ അതുപോലെ തന്നെ നദിയിലുള്ള കല്ലുകൾ ആണെങ്കിലും

ഓർക്കേണ്ടതുണ്ട് അപ്പം പ്രധാനമായിട്ടും ഈ ശേഖരണങ്ങളൊക്കെ അറിവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കലവറയാണ് ഈ ഓരോ കല്ലുകളും ഓരോ കാലത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ കല്ലുകൾ നമ്മെ ഒരു തരത്തിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാമ്പ് കളക്ഷനും നാണയങ്ങൾ നാണയങ്ങളിലൊക്കെ നമ്മൾ ശേഖരണമൊ ക്കെ ഓരോ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തി നോക്കാനായിട്ട് നമുക്ക് ഈ സ്റ്റാമ്പ് കളക്ഷനും അത്പോലെയുള്ള കാര്യങ്ങൾ വഴി സഹായിക്കുന്നുണ്ട് അപ്പം ശേഖരണങ്ങൾ എപ്പോഴും നമ്മൾ ഓരേ കാര്യങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്ന ത് പിന്നീടുള്ള ഒരു തലമുറക്ക് കൈമാറാനായിട്ട് നമുക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം അത് എല്ലാ കാലങ്ങളിലും നമുക്ക് അത് ലഈഭിച്ചെന്ന് വരത്തില്ല ഒരു കാലത്തെ കുറിച്ചു അപ്പോൾ പിന്നീട് നടന്ന അല്ലെങ്കിൽ അ ഒരു കാര്യത്തെ കുറിച്ചു കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ പലതരത്തിലുള്ള സാധനങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നു ഉപകാരപ്പെടുന്നുണ്ട് മറ്റു കുട്ടികളെ കാണിക്കാനും നമ്മളുമായിട്ട് മറ്റൊരു തലമുറയ്ക്ക് കൈമാറാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതിനെ കുറിച്ചു കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇപ്പം ഇപ്പമുള്ള തലമുറയ്ക്ക് അതിനെ കുറിച്ച് മുമ്പുള്ള ആളുകൾ ശേഖരിച്ചു വച്ച കാര്യങ്ങളാണ് ഇപ്പോഴുള്ള തലമുറ തലമുറ തലമുറയിലുള്ള ആളുകൾക്ക് അറിവ് പ്രധാനം ചെയ്യുന്നത് അപ്പം അതുപോലെ നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരിലേക്കും മറ്റുള്ളവർക്ക് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പം പലതരത്തിലുള്ള കോയിനൊക്കെ ആണെങ്കിലും നാണയങ്ങൾ ഒരു രൂപയുടെയും അത് പോലെ പണ്ട് ഉണ്ടായിരുന്ന അഞ്ച് പൈസയുടേയും പത്ത് പൈസയുടേയും നാണയങ്ങളൊന്നും ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പം അതിൻ്റെ ഒക്കെ കാരണം അത് ഇപ്പം നിലവിൽ ഇല്ല താനും അതു പോലെ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉള്ള കോയിനുകളൊക്കെ അത് കുട്ടികൾകൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ പല രാജ്യങ്ങളിലെ തന്നെ പല വ്യക്തികളുടെയും ബഹുമാനാർത്ഥം ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്ന നാണയങ്ങളും ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ഇതുണ്ട് അതു പോലെയും പല തരത്തിലുള്ള പല രാജ്യങ്ങളും പല തരത്തിൽ ഇതു പോലെ ഗോൾഡ് കോയിൻസ് പോലെയുള്ളതും വെള്ളി പോലെയുള്ളതും ഒക്കെ ആയിട്ടുള്ള വെള്ളി കൊണ്ടുണ്ടാക്കിയതുമൊക്കെ ആയിട്ടുള്ള കോയിനുകളൊക്കെ നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു ലോകത്തുണ്ട് അത് നമുക്ക് കാണാനായിട്ട് പലപ്പോഴും കിട്ടാറില്ല അതുപോലെ പല പഴയ രാജാക്കന്മാരെ അവരുടെ കാലത്ത് അവർ രാജാക്കമ്മാരുടെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലൊക്കെ രാജാക്കന്മാരുടെ കാലത്ത് ഓരോ കോയിനുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെയൊന്നും കണ്ടെത്താനും അതിനെ കുറിച്ചു കൂടുതൽ പഠിക്കിന്നതുമൊക്കെ കുട്ടികൾക്ക് നല്ലതാണ് അതുപോലെ ഓരോ രാജാക്കന്മാരും അവരവരുടെ കാലത്ത് ഓരോ ഓരോ തരത്തിൽ ഇന്ത്യയിലായിരുന്നെങ്കിലും പലതരത്തിലുള്ള നാണയങ്ങൾ ഇറക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾക്ക് ഒരു പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അല്ലെ പുതിയ തലമുറയ്ക്ക് കൈമാറാനായിട്ട് നമ്മൾക്ക് സാധിച്ചെങ്കിൽ മാത്രമാണ് അതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പം ഓൾഡ് കോയിൻസ് അല്ലെങ്കിൽ പഴയ കോയിൻസുകളൊക്കെ പഴയ കോയിൻസൊക്കെ നമ്മൾ നമുക്ക് ശരിക്കും പുതിയ ഒരു എന്താണ് അന്നത്തെ കാലത്തെ കുറിച്ചു മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിന് ഒരു പുതിയ ഒരു അതിന് ഒരു പഠനം നടത്തുമ്പോൾ മാത്രമാണ് ഓരോ കാലത്തെ ഓരോ കാലത്തിൻ്റേയും പ്രത്യേകത അല്ലെങ്കിൽ ഓരോ കാലത്ത് ഇറക്കിയ നാണയങ്ങൾ അതിൻ്റെ മൂല്യം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ